തീർച്ചയായിട്ടും ഞാൻ താമസിക്കുന്നത് ഒരു ഒരു ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിൽ ഈ പറഞ്ഞതു പോലെ ചെറിയ പലചരക്ക് കടകൾ ഉണ്ട് അതിനു പുറമേ ചെറിയ പെട്ടിക്കടകൾ ഉണ്ട് അതൊക്കെ ഒരു നമ്മുടെ പഴയ ഒരു പഴയ കാലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാധാ ഇതാണ് കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ കടകളിലാണ് പോവുക പലചരക്ക് കടകളിൽ പോകാറുണ്ട് പലചരക്ക് കടയാകുമ്പോൾ എല്ലാ സാധനവും നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് അവിടെ നിന്ന് ലഭ്യമാണ് അതുകൊണ്ട് നമുക്ക് ടൗണിലേക്ക് പോകേണ്ട ആവശ്യം അധികം വരുന്നില്ല എല്ലാ കാര്യങ്ങളും ഈ പലചരക്ക് കടകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊ പിന്നെന്ത് വെച്ചാൽ അവർ അവിടെ വില പേശാറുണ്ടോ എന്ന് ചോദിച്ചാൽ വില പേശാത ഉണ്ടോയെന്ന് ഉണ്ട് പക്ഷെ എന്നാൽ ഇല്ല കാരണം അവ അവിടെയുള്ള ആൾക്കാരെല്ലാം പാവപ്പെട്ട ചെറിയ ചെറിയ കുടുംബങ്ങളാണ് അവരുടെയൊരു വരുമാന മാർഗം ആണല്ലോ ചെറിയ പലചരക്ക് കടകൾ എല്ലാം അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഒരിക്കലും വില പേശാറില്ല പിന്നെ അവർക്ക് നമ്മളോടുള്ള നമ്മളോടുള്ള മനോഭാവവും അതുപോലെ നല്ല രീതിയിൽ തന്നെയാണ് പിന്നെ ഈ പറഞ്ഞതു പോലെ തന്നെ പണം പിന്നീട് കൊടുക്കുന്നുണ്ടോ എന്നു വച്ചാൽ നമ്മൾ അതും ചെയ്യാറുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന പലചര പലചരക്ക് കടകളിൽ കടം പറയാറുണ്ട് ചില സാഹചര്യങ്ങളിൽ പൈസ കൈയെ കയ്യിലെടുത്തില്ലെങ്കിൽ കടം പറയാറുണ്ട് അതുകൊണ്ട് അവർ സമ്മതിക്കും ആ പിന്നീട് കൊടുക്കുകയും ചെയ്യും മാസത്തേക്ക് ഉള്ള ഒരു ഇതില്ല നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഘട്ടങ്ങളിൽ മാത്രമേ കടം വാങ്ങാറുള്ളൂ അല്ലെങ്കിൽ കടം പറയാറുള്ളൂ എപ്പോഴും നാ എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഗ്രാമങ്ങളിലെ പലചരക്ക് കടകളിൽ എപ്പോഴും അത് ഒരു ഗ്രാമ തനിമ എപ്പോഴും കാണാൻ പറ്റും